ആദ്യമായി എനിക്ക് പാടാൻ തോന്നിയതെന്നു പറഞ്ഞാല് എനിക്ക് ഞാൻ ചെറുപ്പത്തിലെ എനിക്ക് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ മീൻസ് ഒന്നാം ക്ലാസിലോ രണ്ടാം ക്ലാസിലോ ഒക്കെ ആയിരിക്കാമെന്ന് തോന്നുന്നു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പാട്ട് ലെ ചെറിയൊരു വാസന ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ അപ്പോള് പാടാൻ താൽപര്യം തോന്നിയത് ഞങ്ങള് രണ്ടിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളില് പഠിച്ചുകൊണ്ടിരുന്നപ്പോള് അവിടെയൊരു സംഗീത ടീച്ചറുണ്ടായിരുന്നു ഇങ്ങനെ പാട്ട് പാടുന്ന പിള്ളാരെയൊക്കെ തെരഞ്ഞെടുത്തും അങ്ങനെ ഞങ്ങളെ എന്നെ ഞാനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തില് ഞങ്ങളെ പാട്ട് പാടിപ്പിച്ചു സ്കൂളില് ആനിവേഴ്സറിക്കും പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ ആനിവേഴ്സറിക്കും അതു കഴിഞ്ഞു ഞങ്ങള് യുവജനോത്സവത്തിന് സ്കൂളുകളിലെ ഉപജില്ലാ കലോത്സവം ജില്ലാ കലോത്സവം അങ്ങനെയുള്ള മേഖലകളിലൊക്കെ പോയി അ ചെറുപ്പത്തിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ട് ആ ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ട് പാടാനായിട്ടൊക്കെ അതിന് പ്രേരിപ്പിച്ച എനിക്ക് താൽപര്യം തോന്നിച്ചതെന്ന് പറഞ്ഞാല് എന്താണെന്ന് ചോദിച്ചാല് എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതലേ എനിക്ക് പാട്ട് ദാസേട്ടനെയും ചിത്ര ചേച്ചിയെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ പാട്ടൊക്കെ കേള്ക്കാൻ എനിക്ക് വിഷമം വരുമ്പോഴും സ് ഒക്കെ എനിക്കൊരു പാട്ട് കേട്ടാല് മനസ്സ് ഇങ്ങനെ റിലാക്സാകുന്ന കൂട്ട് തോന്നും അതിപ്പോഴും അങ്ങനെ തന്നെ ഒരൂ ആശ്വാസം തോന്നും മനസ്സിന് പാട്ട് കേള്ക്കുമ്പോള് കാമാകുന്നതു പോലെ തോന്നും അതുകൊണ്ട് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പാട്ടും കേള്ക്കും തമിഴ് പാട്ട് കേള്ക്കും ഹിന്ദി പാട്ട് കേള്ക്കും മലയാളം ആ അങ്ങനെയല്ലൊം ഞാൻ കേള്ക്കും എനിക്കിഷ്ടമാണ് പാട്ട് പാടാനും ഇഷ്ടമാണ് ആ അങ്ങനൊക്കെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒരു പാട്ടുകാരി ആകണമെന്ന് പക്ഷെ അതിനുള്ളെയൊരു സാഹചര്യമൊന്നും നമക്ക്

പിന്നെ ആ മോഹങ്ങളൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു പിന്നെ ബാത്ത് റൂമില് കേറുമ്പം പാടും അല്ലാത്തപ്പോള് ചുമ്മാ വെറുതെ ഇരിക്കുമ്പോള് പാടും അങ്ങനെ പാടണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ പാടും എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളുണ്ട് അങ്ങനൊക്കെയാണ് എനിക്ക് പാട്ടിനോട് ഇഷ്ടം കുഞ്ഞിലേ മുതലുണ്ട് വീട്ടിലാണേലും എല്ലാവരും എൻ്റെ ചാച്ചൻ പാടുമായിരുന്നു അമ്മ അമ്മയും കുഴപ്പമില്ലായിരുന്നു പാടും പിന്നെ സഹോദരങ്ങൾ ഞങ്ങൾ എല്ലാവരും തന്നെ തരക്കേടില്ലാതെ പാടുന്നവരാണ് എല്ലാർക്കും പാട്ടിനോട് ഇഷ്ടോള്ളവരുവാണ് പാട്ടാണ് ഏറ്റവും കൂടുതല് ഇഷ്ടമുള്ളത് ബാക്കി കലകളൊക്കെ അത് കഴിഞ്ഞേ ഉള്ളു പാട്ട് ഭയങ്കരര ഇഷ്ടമാണ് കേള്ക്കാനും ആ പാട്ട് പാടുന്നവരെയൊക്കെ ഇഷ്ടമാണ് ചിലപ്പോള് ഞാൻ ചിന്തിക്കാറുണ്ട് ശൊ എനിക്ക് ഇങ്ങനെ ഒന്ന് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അങ്ങനൊക്കെ ചിന്തിക്കാറുണ്ട് ഇനി ഇപ്പോള് പിന്നെ സന്തോഷമാണു പാട്ട് പാടുന്നതും കേള്ക്കുന്നവും അതങ്ങനെ ആസ്വദിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാട്ടിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കുഞ്ഞിലെ മുതലുള്ള ആഗ്രഹവാണ് എല്ലാ പാട്ടുകളും പണ്ടൊക്കെ റേഡിയോ ഉണ്ടായിരുന്നപ്പോള് അന്ന് ടി വി ഒന്നും ഇല്ലായിന്ന സമയത്ത് റേഡിയോയിൽ ഇങ്ങനെ ഇരുന്ന് പാട്ട് കേള്ക്കുമായിരുന്നു എല്ലാ പാട്ടുകളും കേള്ക്കുമായിരുന്നു ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടമാണ് പാട്ട് കേക്കാനും ആസ്വദിക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് പാട്ട് പാടുന്നവരെ എല്ലാം ഇഷ്ടമാണ് എപ്പോഴാണേലും ടി വിയിലുള്ള പ്രോഗ്രാംസ്കളൊക്കെ കാണാറുണ്ട് പാട്ടിൻ്റെ പാടുന്ന കുട്ടികളെയൊക്കെ ഇഷ്ടമാണ് എല്ലാം രസമല്ലെ പാട്ടെന്നു പറയുന്നത് എൻ്റെ ഒരു ആത്മാവാണ് ഭയ്ങ്കര ഇഷ്ടമാണ് എനിക്ക് പാട്ട് പാട്ടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും പാടും എപ്പോഴും പാടും പാടണമെന്ന് തോന്നുമ്പോഴൊക്കെ പാടും അത്രയേ ഉള്ളൂ